ഈ ഫോണിന്റെ നെഗറ്റീവ് അല്ലെങ്കിൽ ഡിസഡ്വാൻ്റേജ് എന്നു വച്ചാൽ ഇതിന്റെ ഇതിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ക്ലാരിറ്റി വളരെ കുറവാണ് ക്ലാരിറ്റി ഉപയോഗിക്കുന്ന ആ സമയത്ത് നമുക്ക് കയ്യിൽ കിട്ടിയപാട് നല്ല ക്ലാരിറ്റി ഉണ്ടായിന് പിന്നെപ്പിന്നെ അതിന്റെ ക്ലാരിറ്റി കുറഞ്ഞ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ പെട്ടെന്ന് തന്നെ ചൂടാവും ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചൂടാകും അതുപോലെ ഹാങ്ങ് ആവുന്ന കൂടുതലാണ് നന്നായിട്ട് ഹാങ്ങ് ആവുന്നുണ്ട്